ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം മധുര പാലഹാരങ്ങളാണ് അതിൽ തന്നെ ജിലേബിയാണ് എനിക്ക് ഏറ്റവുമിഷ്ടപ്പെട്ട ഭക്ഷണം അതുപോലെത്തന്നെ പാലട പ്രഥമനും ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് മധുരം ഒരുപാട് കഴിക്കാൻ ഇഷ്ടമാണ് എനിക്കും എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതു കൊണ്ടുതന്നെ മധുരം ഇഷ്ടമുള്ളത് കൊണ്ടുതന്നെ മധുര പാലഹാരങ്ങളോടാണ് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് അതിൽ ജിലേബിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പറയുന്നത് കോഴിക്കോട് പോയപ്പോൾ ഒരുവട്ടം കഴിച്ച ഒരു മഞ്ഞ ജിലേബിയാണ് വളരെയധികം സ്വാദേറിയതും വളരെയധികം നല്ല ഒരു ജിലേബിയാണ് ജിലേബിയായിരുന്നു അത് അതിൽ അതുപോലൊരു ജിലേബി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയും നല്ല ഒരു ജിലേബി ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ജിലേബി തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായാലും ഏറ്റവും കൂടുതൽ ഏത് നേരം വേണമെങ്കിലും എപ്പോഴാണെങ്കിലും കഴിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സാധനം ജിലേബിയാണ് അതുപോലെ അതുപോലെത്തന്നെ പാലടപ്രഥമനും സദ്യക്ക് ശേഷം കിട്ടുന്ന പാലടപ്രഥമന്റെ രുചി അതിനോട് വെല്ലാൻ വേറെ ഒന്നും ഇതുവരെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാലട പ്രഥമൻ ഉണ്ടാക്കുന്ന രീതിയും വളരെയധികം സ്വാദേറിയത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ സാധിക്കുന്ന സാധനവും നമുക്ക് പാലട പ്രഥമൻ തന്നെയാണ് വളരെ ഈസിയായി ഉണ്ടാക്കുമെങ്കിലും അല്ല വളരെ ഈസിയായി ഈസിയായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും സ്വാദിന്റെ കാര്യത്തിൽ പാലടപ്രഥമൻ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്